ആ നിഥിനെന്ന് പറഞ്ഞ ആളല്ലേ ആ പത്തെൻ്റെ ലൊക്കേഷൻ ആ സാറേ നമ്മൾ കുറച്ച് ഐറ്റംസ് ഡെലിവറിക്ക് ഉണ്ടായിരുന്നല്ലോ കുറച്ച് ഹൗസ് ഐറ്റംസ് സോഫ ടിവി അതുപോലെ സൗണ്ട് സ്പീക്കർ ഒക്കെ ആ സാറേ നമുക്ക് ഇന്നുള്ള ഡെലിവറി നടക്കത്തില്ല കാരണമതൊന്ന് കാര്യം നമുക്ക് ഡിലേ ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ആ ട്രാൻസ്പോർട്ടേഷൻ നടന്നത് പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്ത് വന്നപ്പോൾ ഒരുപാട് താമസമായി പോയി ഇന്ന് ഇപ്പോൾ ഈ സമയമായില്ലേ ഇപ്പം തന്നെ അഞ്ചര ആറ് മണിയായിരിക്കുന്നു ഇന്ന് ഇപ്പം ഡെലിവറി നടത്താൻ സാറിൻ്റെ ലൊക്കേഷൻ ഇവിടെ നമുക്ക് ഒരു ഏകദേശം എങ്ങനെ പോയാലും ഒരു ത്രീ ഹവർ ദൂരമുണ്ട് മൂന്ന് മണിക്കൂറോളം പിന്നെ തിരിച്ച് വരാൻ ഇപ്പോൾ ഈ വെള്ളം മുങ്ങി കിടക്കുന്ന സമയമാണ് സാറിൻ്റെ റൂട്ടിൽ ആണെങ്കിൽ വെള്ളം മുങ്ങി കിടക്കുന്ന ഒരു മാപ്പിൽ പോലും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ് കാണിക്കുന്നത്

സാറിന് വേണേ നാളെ ഒരു ഉച്ചയാവുമ്പത്തേക്ക് ഇവിടെ നിന്ന് രാവിലെ ഓഫീസ് ടൈമോ പത്ത് മണിക്ക് ഓപ്പൺ ആയിട്ട് ഉച്ചയായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തരാവുന്നതാണ് ഇന്നത്തെ സാറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് പക്ഷേ എനിക്ക് മനസ്സിലായി പക്ഷേ സാറേ ഇന്ന് ഒരിക്കലും നടക്കുന്ന രീതിയിലല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാറേ സാറ് സാറേ എനിക്ക് സാറിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി സാറിൻ്റെ മാത്രമല്ല ഒരുപാട് ഡെലിവറി ഇതുപോലെ നമുക്ക് താമസം വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് കൊണ്ടാണ് അത് അല്ലേ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലല്ലോ സാറ് നമ്മളെ റേറ്റിംഗും കാര്യങ്ങളൊക്കെ നോക്കിയതല്ലേ ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഒന്നാമതിവിടെ നമുക്ക് പ്രകൃതിപരമായിട്ടെന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതാണ് ഒന്നാമത്തെ കാര്യം നമക്കീ സാധനം ഇവിടെത്താൻ തന്നെ ട്രാൻസ്പോർട്ട് വെരാൻ തന്നെ ബാംഗ്ലൂരുള്ള സാധനാണ് അതിവിടെത്താൻ തന്നെ നല്ലൊരു പ്രശ്നായി അങ്ങനത്ത കാര്യങ്ങളും ഇത് കാർഗോയിലാ വന്നേ അപ്പൊ അതിൻറ്റൊര് പ്രശ്നങ്ങളും കാര്യങ്ങളയിനാത്ത് ഒന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് ഇനി ഇപ്പം ഇനി ഇവിടെ വന്നു ഇനി ഇപ്പം വന്നിറങ്ങിയ സാധനം ഇപ്പോൾ അൺലോഡ് പോലും ചെയ്തിട്ടില്ല അൺലോഡ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ഇത് പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാാം ചെയ്ത് നമ്മൾ വിടുമ്പോൾ തന്നെ എങ്ങനെ പോയാലും നല്ല ലേറ്റ് ആവും അപ്പം നമുക്ക് അത് ഓ അങ്ങനെ സ്റ്റാഫും നമുക്ക് അവർ അല്ലല്ലോ ആ സിക്സോ ക്ലോക്ക് വരെയാണ് നമുക്ക് ഇത് ടൈം ഉള്ളത് ഓഫീസ് ടൈമുള്ളത് ഇപ്പം തന്നെ അഞ്ചരയായി

ഇല്ല സാറേ നാളെ നമ്മൾ എന്തായാലും അങ്ങനെ പറയില്ലല്ലോ സാറിന് ഇന്ന് വൈകീട്ട് തന്നെ നമുക്ക് സാറിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി വയ്ക്കുകയാണ് നമ്മൾ നാളെ അതൊരിക്കലും നമ്മൾ പറയത്തില്ല നമ്മൾ എന്തായാലും നാളെ സാറിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായി പക്ഷേ നമുക്ക് എന്തായാലും ഇന്ന് ഇനി നടക്കില്ല കാരണം സാറിന് ആലോചിക്കാം ഇപ്പം തന്നെ ആറ് മണിയാവുന്നു ഇനി ഇപ്പോൾ നമ്മൾ ആ സാറിന് വേണമെങ്കിൽ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാം ഒഫീഷ്യൽ സൈറ്റിൽ സാറിന് മെയിലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണത് പക്ഷേ സാറ് അത്ര ഒരൂ സ്റ്റെപ്പിലോട്ട് പോവേണ്ട ആവശ്യമില്ല സാറിന് നാളത്തന്നെ ഡെലിവർ ചെയ്ത് തരാം സാറിൻ്റെ സ്പെഷ്യൽ കേസായിട്ട് തന്നെ ഇട്ട് ഞാൻ സാറിന് നാളെത്തന്നെ അറേഞ്ച് ചെയ്യാം അത് സാർ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ചെയ്താൽ നമ്മൾക്ക് അത് പ്രശ്നമാണ് ഇന്നെരും നമുക്ക് അങ്ങനെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ജുവല്ലോ ഇത്രയും ഡിലേ ആയിട്ടാണ് നമുക്ക് ഇവിടെ അലേർട്ട് അത് ഈ വെള്ളപ്പൊക്കം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ റോഡ് മൊത്തം വെള്ളം കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് ഒരിക്കലും ട്രാൻസ്പോർട്ടേഷൻ അതൊരിക്കലും നടക്കുന്ന രീതിയിൽ അല്ലായിരുന്നു എന്നിട്ട് പോലും ഇവിടെ എത്തി കിട്ടാൻ റിസ്ക് പിന്നെ നാളെ ഈ ഇത് സാധനങ്ങൾ വരുന്ന വഴിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ സാർ ഒന്ന് മനസ്സിലാക്ക് അത് സാറിന് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഇല്ല ഇന്ന് ഇനി ഇപ്പോൾ എന്തായാലും ആറ് മണിയാവുമ്പോൾ ഓഫീസ് ക്ലോസ്ട് ആണ് ആ അടയ്ക്കുകയാണ് അപ്പോൾ ഇന്ന് ഇനിയും വന്നാൽ സാറിന് കളക്റ്റ് ചെയ്യാൻ കാരണം പേപ്പർ വർക്കും കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സാറിന് സാറിന് ഓൾറെഡി ക്യാഷ് അടച്ചതല്ലേ ഓൾറെഡി അടച്ചതല്ലേ ഇല്ല നാളെ തരത്തില്ല സാറേ നാളെ ഉറപ്പായിട്ടും സാറിന് സാധനം എത്തിച്ചേരാം ഉറപ്പാണ് അത് നമ്മൾ പന്ത്രണ്ട് മണിക്ക് മുമ്പ് സാറിന് ഡെലിവറി ആവുന്ന രീതിയിൽ ശരിയാക്കി തരാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സാർ താങ്ക് യു